ആ അതെല്ലോ എന്താ കഥകളി പഠിക്കാനാണോ പഠിക്കാൻ ആ ഇവിടെ നിന്ന് ഇപ്പം എന്റെ കീഴിൽ പതിനഞ്ച് പിള്ളേര് പഠിക്കുന്നുണ്ട് ഫീസ് ഒരു ഇത് ആ ആഴ്ച്ചയിൽ രണ്ട് തവണയാണ് ക്ലാസ് എടുക്കുന്നത് ആ എടുക്കുന്നുള്ളൂ ക്ലാസ് അത് നമുക്ക് പിള്ളേരെ അത് അനുസരിച്ച് ഞങ്ങൾക്ക് ക്രമീകരിക്കാന് നിങ്ങൾക്ക് ഏത് ദിവസമാണ് സൗകര്യമെന്നാൽ അത് വെച്ച് നമുക്ക് ക്ലാസ് എടുക്കാം

ആ ഒരു ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം

ആ ഫീസ് പതിനായിരം രൂപയാണ് ഫീസ് ആ പഠിച്ച് തീരുമ്പം ഒരു മാസത്തിന് അത് രണ്ട് തവണ ആയിട്ട് അയ്യായിരം രൂപ വെച്ച് എടുക്കും പതിനായിരം രൂപ പഠിച്ച് തീരുമ്പം പതിനായിരം രൂപയാണ് ഫീസ് കഥകളി നന്നായിട്ട് പഠിപ്പിക്കുകയും എന്നാന്ന് വെച്ചാൽ ഇപ്പം അന്യം നിന്ന് പോയ ഇതൊക്കെയല്ലേ കഥകളിയൊക്കെ അതൊക്കെ ഇപ്പം വീണ്ടും എന്നാ പഠിപ്പിച്ചൊക്കെ എടുക്കണമെങ്കിൽ നല്ല ഇതുണ്ടല്ലോ ചിലവുണ്ടല്ലോ അപ്പം അത് നല്ല ഒരു നമ്മളുടെ ഇത് നല്ല കളിയല്ലേ കഥകളി പിന്നെ ആ ഇല്ല ഡ്രസ്സ് കിട്ടിയാൽ അതിനും അതിന് സ്റ്റേജിൽ കയറുന്നത് വരെ സ്റ്റേജിൽ കയറുമ്പോഴും അതിന്റെ ഇതിനും വേറെ ചിലവാണ് അതിന്റെ ഡ്രസ്സും ഓ എല്ലാ കാര്യങ്ങള്ക്കും വേറെ ചിലവ് വരും കഥകളിയല്ലേ ഇത് വേറെ ചിലവ് ഉണ്ട് ആ അത് മുമ്പ് വന്നു നിങ്ങൾ എത്ര പിള്ളേര് വരാനാണ് ഉദ്ദേശിക്കുന്നത് ആ മൂന്ന് പേര് മൂന്ന് പേർക്കും ഒരു ദിവസം പഠിക്കാനാണോ താല്പ്പര്യം ആണോ ആ അപ്പം നിങ്ങൾ മൂന്ന് പേരു ഒന്നിച്ച് ഒരു ദിവസം നിങ്ങളെ മൂന്ന് പേർക്കും ഒന്നിച്ച് ക്ലാസ് എടുക്കാം ആ സമയം രാവിലെ ആ രാവിലെ നിങ്ങളുടെ നിങ്ങൾ ഒരു സമയം പറയുക ആ സമയത്ത് എന്നാ ഞങ്ങൾക്ക് വിട്ടാൽ മതി ക്ലാസ് എടുക്കാൻ ആ പിന്നെ പതിനെ ആ ആ അത്രയും ആ സമയം അത് ശരിയാണ് അത് കഴിഞ്ഞാൽ അതുപോലെ ബാക്കി ഉള്ള പിള്ളേരെ അത് അനുസരിച്ച് ക്രമീകരിക്കാമല്ലോ പതിനൊന്ന് മുതൽ പറഞ്ഞാൽ പത്ത് പതിനെട്ട് പിള്ളേരായി ഇപ്പം ആ കൂടുതൽ അതിൽ കൂടുതൽ പിള്ളേരെ എടുത്താൽ എനിക്ക് അസൗകര്യം ഉണ്ട് അത് കാരണം ആ അതല്ല പിന്നെയോ അത് നിന്റെ ഇതിന്റെ കൂടെ വേറെ രണ്ട് മൂന്ന് മൂന്ന് ഇതുകൂട്ട് ഓട്ടന്തുള്ളലുണ്ട് നാടോടിനൃത്തം ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ആ ഓട്ടതുള്ളലിന് തുള്ളാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞ് പോയോ അതൊക്കെ ഫീസ് ഇതെല്ലാം ഒന്ന് തന്നെയാണ് ആ ആ കഥകളി പറഞ്ഞാൽ നിങ്ങൾ വന്ന് എനിക്ക് ഒരു ദക്ഷിണ ഒക്കെ വെച്ച് തന്ന് കൂടിക്കോ ആ ഞാൻ കലാമണ്ഡലത്തിലാണ് പഠിച്ചത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് പഠിച്ച എനിക്ക് എനിക്കെല്ലാത്തിന്റെയും സര്ട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ആണ് ആ ആ പോരെ ദക്ഷിണ വയ്ക്കണം ഒക്കെ അങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അങ്ങനെ ദക്ഷിണ വെച്ചാണ് നമ്മൾ ഒരു ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ ദക്ഷിണ വയ്ക്കണം ദക്ഷിണ ദക്ഷിണ നൂറ്റൊന്ന് തുടങ്ങി മുകളിലോട്ട് എത്ര വേണേലും വയ്ക്കാം ആ വിളിച്ചിട്ട് വരണം അഡ്വാന്സ് ആയിട്ട് തരണമെന്നില്ല ഒരയ്യായിരം രൂപ അഡ്വാന്സ് തന്നാലും കുഴപ്പമില്ല ആ എന്തായാലും ഞാൻ പഠനം പൂര്ത്തിയാക്കി പിള്ളേരെ പഠിപ്പിച്ച് അരങ്ങേറ്റത്തിന് ഏ അരങ്ങേറ്റത്തിന് പിള്ളേരെ അവരെ എത്തിച്ചിട്ട് വിടുകയുള്ളു അല്ലാതെ പിള്ളേരെ അങ്ങനെ പകുതി നിര്ത്തിയൊന്നും നിര്ത്തി വിടില്ല ആ അയ്യോ കുറവൊന്നും ചെയ്യാൻ പറ്റുകയില്ല നമ്മളിത് പോലെ ഒത്തിരി ഇത് കഷ്ടപ്പാടാണല്ലോ ഇതൊക്കെ പഠിപ്പിച്ചെടുക്കുന്നതിന് ആ ഡ്രസ്സൊക്ക ഒന്ന് നല്ലത് പോലെ സ്റ്റേജിൽ കയറി നല്ല പരിപാടി ഒക്കെ അല്ലേ അത് കളിക്കാതെ ഇതിനൊക്കെ പൈസയൊക്കെ മുടക്ക് വരും അല്ലാതെ നമുക്ക് കാര്യം നടക്കുകയില്ലല്ലൊ ആ രാവിലെ തൊട്ട് അങ്ങനെ വന്നേരെ ആ എന്നാൽ ശരി ആ എന്നാൽ ശരി ആയിക്കോട്ടെ ആ പോരുന്നതിന് മുൻപ് വിളിച്ചേരെ ആ ശരി